നമുക്ക് ഗ്ലാസ് പെയിൻ്റിങ്ങ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഇതാണല്ലോ അപ്പോൾ അവർ അവരുടെ അതിൻ്റെ ഐ ഡി വച്ച് അവരുടെ നോളജും വച്ച് അവർ ചെയ്യുന്ന വർക്കിൻ്റെ കോളിറ്റി വച്ച് നമുക്ക് ഒരു വേണെ ഒരു ബിസിനെസ്സ് ഇട്ട് കാര്യങ്ങൾ നമ്മൾക്ക് വിജയിപ്പിക്കാം അങ്ങനെ പല കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ചിലവർ ഓൺലൈനായിട്ട് നമുക്ക് ഇപ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമ് വഴിയൊക്കെ അങ്ങനെ ഒരുപാട് നമ്മൾക്ക് ചെയ്തു നമ്മൾക്ക് ഒരുപാട് ക്യാഷ്കളും കാര്യങ്ങളും നമ്മൾക്കും ഉണ്ടാക്കാം ഒരുപാട് നമ്മൾക്ക് നേട്ടങ്ങളൂണ്ടാവും ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് എന്തായാലും ഉണ്ടാവും നമുക്ക് അത് എന്തായാലും നമ്മൾ കോളിറ്റി വർക്ക് ആണെങ്കിൽ ജനങ്ങൾ വാങ്ങും അതിലൂടെ നമ്മൾക്ക് വീട്ടമ്മമാർക്ക് നല്ലൊരു ജോലി കിട്ടും അങ്ങനെ ഒരുപാട് നമ്മൾക്ക് ബനിഫിറ്റ്സ് കാണാം പക്ഷെ അത് കോളിറ്റി വർക്കും കാര്യങ്ങൾ നമുക്ക് നല്ല വൃത്തിക്ക് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഒത്തൊരുമയായിട്ട് ഒരു യൂണിറ്റ് തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വിജയകരമായി നമുക്ക് പൂർത്തീകരിക്കാം നല്ലൊരു യൂണിറ്റ് ആയിട്ട് നമ്മൾക്ക് വികസിപ്പിച്ചെടുക്കാം